ഹലോ ഞാൻ അലീമയാണ് കിഴിശ്ശേരിയിൽനിന്നാണ് വിളിക്കുന്നത് എനിക്ക് ഒരു ഓട്ടോറിഷ കിട്ടേണ്ടിനി പുൽപ്പറ്റയിലേക്ക് പോകാനാണ് ഒരു ഒരു ഉച്ചക്കൊക്കെ ആകുമ്പോഴേക്ക് വേണ്ടി ഒരുമണിയൊക്കെ ആവുമ്പോൾ എൻ്റെ പുര തവനൂർ ആണ് തങ്ങൂർ അങ്ങാടിയിൽനിന്ന് അവിടുന്ന് താഴേക്കൊരു റോഡ് നാലാമത്തെ വീടാണ് എന്റേത് ഞാൻ പുൽപ്പറ്റയിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഓട്ടോഷ ഓഡ്റ് ചെയ്യുന്നത് എത്ര രൂപയാകും അത്രയൊക്കെ കൂടുതലല്ലേ നിങ്ങൾ എപ്പോളാണ് വരുക കറക്റ്റ് ഒരു മണിക്കുതന്നെ എൻ്റെ വീട്ടിലെത്തണം നേരം വൈകാൻ പറ്റില്ല